പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഇരുപത്താറ് ഒന്ന് രണ്ടായിരത്തി നാല് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാതിനാല് ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി പത്ത്